ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ പല മതവിശ്വാസത്തിൽ പെട്ടവരുമുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യൻസുണ്ട് പക്ഷേ അവരൊക്കെ നല്ല രീതിയിലാണ് അവരുടെ മതപരമായ വിശ്വാസങ്ങളെല്ലാം കൊണ്ടുപോണത് പിന്നെ ആർക്കും ആരോടും യാതൊരു പ്രശ്നവും ഒന്നും അവർ കാണിക്കാറില്ല പിന്നെ ക്രിസ്ത്യൻസാണെങ്കിൽ എല്ലാ ഞായറാഴ്ച്ചയും പള്ളിയിൽ പോവുകയും വെള്ളിയാഴ്ച്ചകളിൽ അവരുടെ നോമ്പ് നോക്കുകയും പിന്നെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പോവുകയുമൊക്കെ ചെയ്യും ഹിന്ദുക്കളായിരുന്നാലും അമ്പലത്തിൽ പോവാനും എന്തെങ്കിലും വിശേഷാവസരങ്ങളൊക്കെ ആഘോഷിക്കാനും ഒക്കെയുള്ളതൊക്കെ കാണിക്കാറുണ്ട് പിന്നെ മുസ്ലീങ്ങളാണെങ്കിൽ പിന്നെ അറിയാലോ അവർ പിന്നെ നോമ്പു കാലത്ത് കറക്റ്റായിട്ടു നോമ്പ് നോക്കുകയും മറ്റുള്ളവർക്ക് ഈ നോമ്പു കാലത്ത് അവർ സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഇതാണ് പിന്നെ അവരുടെ നോമ്പുകാലത്ത് ആയിരുന്നാലും നമുക്ക് കഞ്ഞിയൊക്കെ കൊണ്ടുത്തരും പിന്നെ ക്രിസ്റ്റ്യാനികളായിരുന്നാലും അങ്ങനെ തന്നെ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കേക്കും വട്ടയപ്പവൊക്കെ കൊണ്ടുത്തരും അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് ആചരിച്ചു പോകുന്നത് പിന്നെ ഹിന്ദുക്കളാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ ഗണേഷ ചതുർത്ഥിപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് വരാറുണ്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറാറുമുണ്ട്